കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള മൊബൈലും ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണും തമ്മിലുള്ള വ്യത്യാസങ്ങള് ചോദിക്കുകയാണെങ്കില് നമ്മളാദ്യം തന്നെ പറയുക എന്താണ് ഫസ്റ്റ് പണ്ടുകാലങ്ങളെ ഓർക്കുമ്പോള് ആദ്യം നമ്മുടെ മനസിലേക്ക് വരുന്നത് നോക്കിയ ഫോണായിരിക്കും ഇല്ലെ സ്വിച്ചും കാര്യങ്ങളുമൊക്കെയുള്ള നോക്കിയ ഫോണ് ഇപ്പോഴുമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ലോക്കൽ വർഷന് ആയിരുന്നു പണ്ടുണ്ടായിരുന്നത് അതിലുണ്ടായിരുന്ന പാമ്പും കോണിയുടെയും കളിയും അതുപോലെ തന്നെ കട്ടകള് വന്ന് വീഴുന്ന കളിയൊക്കെയുണ്ട് അപ്പോള് അതെന്ന് പറഞ്ഞാല് ആ അന്നത്തെക്കാലത്തെ ഗെയിമെന്ന് പറഞ്ഞാല് ഇങ്ങനത്തെയൊക്കെ ഓരോ ഗെയിമാണ് കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഗെയിം അതുപോലെ തന്നെ അതില് ഓരോ ലിമിറ്റേഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ ഫോണെന്നൊക്കെ പറഞ്ഞാല് എന്നാല് ഇന്നത്തെ ഫോണെന്നൊക്കെ പറഞ്ഞാല് സ്മാർട്ട് ഫോണും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കില് ഏത് ഗെയിമും കാര്യങ്ങളും അതില് കളിക്കാൻ പറ്റും എന്ത് വീഡിയോസും അതില് കാണാൻ പറ്റും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും നമുക്കതില് ചെയ്യാൻ പറ്റും ഇപ്പോള് വീട്ടില് പോകണം ലാപ്പില് യൂസ് ചെയ്യുന്ന കാര്യങ്ങള് വരെ നമുക്കെന്താകും ഫോണില് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണില് കാര്യങ്ങളെന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഇതില് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാല് ബാക്കിയുള്ള സിസ്റ്റങ്ങളില് ഉപയോഗിക്കുന്ന കാര്യങ്ങള് പോലും നമുക്കെന്താകും നമ്മുടെ ഫോണില് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ക്യാമറ പോലത്തെ കാര്യങ്ങള് നമുക്ക് ഇപ്പോഴത്തെ ഫോണില് നമുക്ക് കണ്ട്രോള് ചെയ്യാന് പറ്റും പക്ഷേ പണ്ടുകാലത്തെ ഫോണെന്ന് പറഞ്ഞാല് ഇതിനൊന്നും ഫാക്കൽറ്റി ഇല്ലാത്തൊരു ഫോണായിരുന്നു പണ്ടുകാലത്തൊക്കെയുണ്ടായിരുന്നത് ഇനി നെറ്റ്വർക്ക് കണക്ഷനും കാര്യങ്ങളുമൊക്കെ പറയുകയാണെങ്കില് തന്നെ ഇപ്പോഴത്തേതെന്ന് പറഞ്ഞാല് ഇപ്പോഴത്തേതെന്ന് പറഞ്ഞാല് പണ്ടത്തെപോലെയല്ല പണ്ടെന്ന് പറഞ്ഞാല് നെറ്റ്വർക്ക് കണക്ഷനൊന്നും അത്രയൊന്നും വ്യാപകമായി ഇല്ലാത്തൊരു സംഭവമായിരുന്നു നെറ്റ്വർക്ക് പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാല് ഒരു വീട്ടില് നെറ്റ് കാര്യങ്ങള് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ തോതിൽ എന്താണ് വർദ്ധിച്ചിട്ടുണ്ട് ഇനി ഇപ്പോള് എൻ്റെ വീട്ടില്ത്തന്നെ എടുത്തുനോക്കിയാല് ഞങ്ങളെല്ലാവരും ഡാറ്റയും കാര്യങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഇപ്പോള് ഞാൻ ഉപയോഗിക്കുന്ന സിമ്മെന്ന് പറഞ്ഞാല് വി ഐ ആണ് അതുതന്നെ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കില് ധാരാളം പൈസ എനിക്കെന്തായാലും ചെലവാകുന്നുണ്ട് ഓരോ മാസന്തോറും എനിക്ക് നല്ല ക്യാഷും കാര്യങ്ങളുമൊക്കെ അതില് ചെലവാകുന്നുണ്ട്